ഇന്ത്യയിലെ രാഷ്ട്രീയത്തിനേയും രാഷ്ട്രീയ പാർട്ടികളേയും കുറിച്ച് അഭിപ്രായം പറയേണ്ടതായിട്ടുണ്ട് ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയിലെപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ അനിവാര്യമാണ് അപ്പോൾ നമ്മുടെ നിലവിലോ കുറേ പല രാഷ്ട്രീയക്കാരുണ്ട് കോൺഗ്രസ് സി പി ഐ എം സി പി എം കമ്മൂണിസ്റ്റ് അങ്ങനെ പലരും ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവിശ്യമാണ് ഒരു പരിധിവരെ പക്ഷേ രാഷ്ട്രീയക്കാരിപ്പോൾ ശരിക്കും അവരുടെ ഒരു മുതലെടുപ്പായിട്ട് തന്നെയാണ് ഇതിനെയൊക്കെ കാണുന്നത് അവരുടെ പോക്കറ്റിലെന്ത് നേട്ടമുണ്ടാവും അവർക്കെന്ത് വ്യക്തിപരമായ പ്രയോജനം ഉണ്ടാകുമെന്ന രീതിയിലാണ് അവരോരോന്നും കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് വ്യക്തികൾക്ക് കിട്ടേണ്ട അർഹതയോ സഹായങ്ങളോ ഒന്നും കിട്ടാൻ കിട്ടുന്നതായിട്ട് ലഭിക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കുവേണ്ടി പല കാര്യങ്ങളും ഇന്ന് നടക്കുന്നുണ്ട് അതുപിന്നെ നമ്മൾ അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അതിനകത്ത് നേട്ടം കൊയ്യുന്നതും എന്നാൽ സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായമൊക്കെ എത്തിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അതിലേക്കവർ പോകുന്നില്ല അവർക്കെന്തെല്ലാം നേട്ടങ്ങളുണ്ട് ഇഷ്ടം ഇഷ്ടമില്ലാത്തതും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവനവൻ എനിക്കെന്ത് സാമ്പത്തികനേട്ടം ഉണ്ടാകും അല്ലെങ്കിൽ എനിക്കെന്ത് ബഹുമതി എനിക്കെന്തു പ്രദർശനം എനിക്കെന്തു നെലനിൽപ്പ് എന്നാണ് നോക്കുന്നത് മറ്റുള്ളവരെ പരിഗണിക്കുന്നില്ല മറ്റുള്ളവരുടെ ആവശ്യം പോലും അവർ മുതലാക്കി എടുക്കുന്നില്ല മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ പരിഗണിക്കുന്ന മറ്റുള്ളവരെ അവരെപ്പോലെതന്നെ കണ്ടാൽ മാത്രമല്ല അവർക്കതിനകത്ത് മറ്റ് എന്തെങ്കിലു ഒരു നേട്ടം വന്നാൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സഹായിക്കുള്ളൂ ഇത് അവർക്കൊന്നും കൊടുക്കുന്നില്ല എൻ്റെ ലാഭം നോക്കി മാത്രമാണ് പ്രവർത്തിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നേയും ഏറ്റവും ഇഷ്ടമുള്ള രാഷ്ട്രീയ നേതാവെന്നു പറഞ്ഞാൽ നമ്മുടെ പണ്ടു കാലത്തുണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി ഇവരുടെയൊക്കെ ആദർശങ്ങൾ നമ്മൾ വായിച്ചുമൊക്കെ നോക്കുമ്പം അത് എന്തുമാത്രം അവരൊക്കെ എന്തോരം ത്യാഗം ചെയ്താണ് ജീവിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരൊക്കെ അവരവരുടെ കാര്യത്തിനു വേണ്ടിയല്ല മറ്റുള്ളവരെ എങ്ങനെ ഇയർത്താൻ പറ്റും എന്ന രീതിയിലാണവർ നടക്കുന്നത് നമ്മൾക്കിവരെയൊക്കെ കാണാൻ അവസരം ലഭിച്ചാലവരോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ട ആവശ്യമായിട്ടുണ്ട് മറ്റുള്ളവരുടെ സ്വാർഥത സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുന്ന പാർട്ടികൾ ഏതു പാർട്ടിയാണെങ്കിലും വേണ്ടിയില്ല അവർ മുൻപന്തിയിൽ വന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ സ്വാർത്ഥ താല്പര്യമില്ലാതെ മറ്റുള്ളവരെ മാനിക്കുന്ന മറ്റുള്ളവരെ ബഹുമതിക്ക് ബഹുമാനിക്കുന്ന മറ്റുള്ളവരുടെ ഉയർച്ചയെ ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾക്ക് രാജ്യത്തിനും നിലനിൽപ്പിനും എപ്പോഴുമാവശ്യം അന്ന് അതുപോലെയുള്ള വ്യക്തികൾ വളരെ കുറവാണിപ്പോൾ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽ ഇതൊന്നും അർക്കും താല്പര്യവുമില്ലാത്ത രീതിയിൽ ഞാൻ എന്നിൽ എന്നൊതുങ്ങുന്നൊരു സംവിധാനത്തെപ്പോലെയാണ് നമ്മൾക്ക് ജനാധിപത്യത്തെയിപ്പോൾ കണക്കാക്കാൻ പറ്റുള്ളൂ ഓരോ പാർട്ടികളെ മികച്ചു കാണിക്കാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങളെ നമ്മളിന്നു കാണുന്നുള്ളു